ശെരിക്കും പറഞ്ഞാല് ഈ യുവതലമുറയും പിന്നെ പഴയെ തലമുറയും രണ്ടും വ്യത്യസ്ത ലോകങ്ങളാണ് ശെരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിനെയും ഒരിക്കലും ഒരു ഒന്നിച്ച് ചേർക്കാൻ പറ്റാത്തൊരു ഞങ്ങൾക്ക് രണ്ടും ഒരേപോലെ എന്നുള്ളരീതിയില് നമുക്കൊരിക്കലും സംസാരിക്കാൻ പറ്റില്ല കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് പഴയ തലമുറ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫോണ് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് അവരുടെ വസ്ത്രധാരണ രീതികളും എല്ലാം കൊണ്ടും വ്യത്യസ്തരാണ് പഴയ തലമുറകള് പക്ഷെ ഇപ്പൊത്തെ പുതിയ തലമുറ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല അതായത് പിന്നെ വസ്ത്രങ്ങള് കാര്യങ്ങള് ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മോഡേൺ കാര്യങ്ങളൊക്കെയാണ് അതായത് ജീൻസും ടോപ്പും അതേപോലെ പിന്നെ മുട്ടിന് മുന്നിലുള്ള പാവാട ബനിയൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കില് മുണ്ടും ബ്ലൗസും പിന്നെ സാരി ചുരിദാറ് അങ്ങനെയുള്ളതൊക്കെയായിരുന്നു അതായത് മാക്സിമം കവറ് ചെയ്തിട്ടുള്ള ഡ്രെസ്സുകളായിരുന്നു ശരീരം കവറുചെയ്തിട്ടുള്ള ഡ്രെസ്സുകളായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല ഡ്രസ്സിങ് രീതികളെല്ലാം മാറ്റമാണ് പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൻ്റെ ഉപയോഗം അതായത് നമ്മള് വീട്ടുകാരോട് സംസാരിക്കുന്നത് വളരെ കുറവാണ് പിന്നെ പണ്ടത്തെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോണ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മള് പരസ്പരം ആശയവിനിമയം നടത്തും അങ്ങനെത്തെ കാര്യങ്ങളും പിന്നെ ഫുഡിൻ്റെ കാര്യം വരുവാണെങ്കിൽ പണ്ടത്തെ ഫുഡല്ല ഇപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഫുൾ അതായത് നമുക്ക് പുറമെയുള്ള ഫുഡുകളാണ് കൂടുതൽ എല്ലാവരും കഴിക്കാൻ ഇഷ്ട്ടപ്പെടുന്നത് പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് എന്താ ഉണ്ടാക്കുന്നത് അതാണ് നമ്മള് കഴിക്കുക